എൻ്റെ പ്രദേശത്ത് ഞങ്ങളുടെ പ്രദേശമെന്ന് പറഞ്ഞാല് കൂടുതൽ ഫലങ്ങളുള്ള ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൂടുതൽ ഫലങ്ങളുള്ള ഒരു നാടാണ് എൻ്റെ നാടെന്നുള്ളത് അതായത് ഞങ്ങളുടെ നാട്ടില് ഏറ്റവും കൂടുതലുള്ളത് സാധാരണ കേരളത്തിൻ്റെ ഏറ്റവും അറിയപ്പെട്ട തെങ്ങ് തന്നെയാണ് ഞങ്ങളുടെ കൂടുതൽ നാട്ടിൽ കൂടുതലായിട്ടുള്ളത് ഉം എപ്പോഴും വിളവെടുക്കാവുന്നൊരു ഇതാണ് തെങ്ങെന്നുള്ളത് ഉം പിന്നെ അതുപോലെ അടയ്ക്ക അടയ്ക്ക മഴയ്ക്കൊക്കെ അനുസരിച്ചാണ് ഇപ്പോള് മഴ കിട്ടിയാല് നമ്മള് അടയ്ക്ക ഒരു വർഷത്തില് രണ്ട് പ്രാവശ്യം പറിക്കാൻ മാത്രമേയുണ്ടാകൂ അഥവാ കുംഭ മഴയില്ലെന്നുണ്ടെങ്കില് അടയ്ക്ക വളരെ കുറവായിരിക്കും പിന്നെ അതുപോലെ ഞങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സാണ് മാങ്കോ മാങ്ങയെന്നുള്ളത് ഉം മാങ്ങ സാധാരണ വേനൽക്കാലത്താണ് ഉണ്ടാകാറുള്ളത് വേനൽക്കാലത്ത് സ്കൂൾ പൂട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കൊക്കെ സ്കൂള് അടയ്ക്കുന്ന സമയത്താണ് നമ്മുടെ മാങ്ങ മാങ്ങാക്കാലം വരാറുള്ളത് നന്നായി മാങ്ങയുണ്ടാകും ഇപ്പോള് എൻ്റെ തറവാട്ടിലെ തൊടിയില് തന്നെ പലവിധം മാങ്ങകൾ കിളിച്ചുണ്ടന് കപ്പൽ മാങ്ങ അങ്ങനെ വ്യത്യസ്ത നാടൻ മാങ്ങ കോട്ടി മാങ്ങ എല്ലാവിധ മാങ്ങകളും ഞങ്ങളുടെ നാട്ടിലുണ്ട് പിന്നെ അതുപോലെ ഞങ്ങളുടെ തൊടിയിലുള്ള വേറെ ഞങ്ങളുടെ തോട്ടത്തിലുള്ള മറ്റൊരു സാധനമാണ് അടയ്ക്കാപ്പഴം പേരയ്ക്കയെന്നുള്ളത് പേരയ്ക്ക സാധാരണ ഉണ്ടാകാറുള്ളത് മഴക്കാലത്താണ് ഉം ജൂൺ കാലം തുടങ്ങുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ തൊടിയിലുള്ള ഈ പേരയ്ക്ക ഉണ്ടാകാറുള്ളതും പിന്നെ അതുപോലെ എൻ്റെ വീട്ടുമുറ്റത്തുള്ളൊരു സാധനമാണ് അത്തിപ്പഴം സീതപ്പഴം എന്നൊക്കെ പറയും അത്തിപ്പഴമെന്നുള്ളത് അപ്പോള് ഈ സീതപ്പഴം ഉണ്ടാവക എപ്പോഴാണെന്ന് ചോദിച്ചാല് നമ്മുടെ മഴക്കാലത്തുതന്നെയാണ് പേരയ്ക്ക അതുപോലെ സീതപ്പഴമൊക്കെ ഒപ്പമാണുണ്ടാകാറ് പിന്നെയതുപോലെ മറ്റൊരു സാധനമാണ് നമ്മുടെ റംബുട്ടാന് എന്നുള്ളത് റംബുട്ടാനും ഏകദേശം മഴ തുടങ്ങുന്ന സമയത്താണ് റംബുട്ടാന് ഉണ്ടാകാറുള്ളത് പിന്നെ ഞങ്ങളുടെ നാട്ടില് ആ ഇപ്പോള് പുതിയതായി ഉണ്ടായ സാധനമാണ് വത്തയ്ക്ക കഴിഞ്ഞ വേനലില് കുറച്ചായിട്ട് ഇപ്പോള് വത്തയ്ക്ക നമ്മുടെ നാട്ടില് വിളവെടുക്കുന്നുണ്ട് അപ്പോള് പ്രധാനമായും ഈ സാധനങ്ങളൊക്കെയാണ് ഈ ഫ്രൂട്സുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായി ഉണ്ടാകാറുള്ളത് പിന്നെ മഞ്ഞുകാലങ്ങളില് നമ്മുടെ നാട്ടില് മുസമ്പി നാരങ്ങ മുസമ്പി അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടില് പ്രധാനമായി ഉണ്ടാകാറുള്ളത് പിന്നെ ചെറിയ ചെറിയ സപ്പോട്ട അതായത് നമ്മുടെ ചിക്കു പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതും നമ്മുടെ മഞ്ഞുകാലങ്ങളിലാണ് ചിക്കു ഉണ്ടാകാറുള്ളത് സാധാരണയായി ഞങ്ങളുടെ നാട്ടിലുള്ളത് തെങ്ങാണുള്ളത് പിന്നെ അതുപോലെ തേങ്ങ അതായത് ഇളനീര് അതൊക്കെ എപ്പോഴും കിട്ടുന്നതാണ് പിന്നെ അതുപോലെ അടയ്ക്ക പിന്നെ മാംഗോ പിന്നെ ചിക്കു റംബുട്ടാന് പേരയ്ക്ക സീതപ്പഴം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടില് സാധാരണയുള്ളത് പിന്നെ മൾബറി ഉണ്ടാകാറുണ്ട് മൾബറി ഏകദേശം ഈ മഞ്ഞുകാലം മഞ്ഞും മഴയുമുണ്ടാകുന്നൊരു കാലത്തുണ്ടാകാറുണ്ട് അപ്പോഴാണ് മള്ബറി നമ്മുടെ നാട്ടിലുണ്ടാകാറുള്ളത് നല്ല എല്ലാവിധ മള്ബറിയുണ്ടാകുന്ന സമയം ഈ മഞ്ഞും മഴയും ഒപ്പമുണ്ടാകുന്ന സമയത്താണ് മള്ബറി കൂടുതലായി കിട്ടാറുള്ളത് പിന്നെ എല്ലാ ഫ്രൂട്ട്സും ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥയ്ക്കനുസരിച്ചും അല്ലാതെയുമുണ്ടാകാറുണ്ട്